ഇവിടെ അടുത്ത് ട്രാവൽ ഏജൻസി ആ പാലക്കാടുണ്ട് അതിൽ ട്രാവലേജൻസയെന്ന് പറയുമ്പോൾ അവർ ഈ വലിയ ട്രിപ്പുകൾ അങ്ങനത്തെ ആ അത്യാവശ്യം വലിയ കാര്യങ്ങളൾ ഇപ്പോൾ ഇന്ത്യയുടെ ഉള്ളിൽ പോകാൻ പറ്റുന്നതും വിദേശ രാജ്യങ്ങൾക്ക് അങ്ങനെ എനിക്കറിയില്ല അവർ കൊണ്ടു പോകുമോ അതിൻ്റെ കാര്യങ്ങളൾ എനിക്കറിയില്ല ഇപ്പം ഇന്ത്യയുടെ ഉള്ളിൽ തന്നെ അത്യാവശ്യം കാര്യങ്ങൾ ഇപ്പോൾ പിക്നിക് സ്പോട്ടുകളിലും കാര്യങ്ങളിലൊക്കെ അവർ അത്യാവശ്യം നല്ല അറിയപ്പെടുന്നൊരു കമ്പനി തന്നെയാണ് അവർ നല്ല പാക്കേജുകളാണ് കൊടുക്കുന്നത് ഇപ്പം കോളേജ് ട്രിപ്പുകൾക്കാണെങ്കിലും അങ്ങനത്തെ ആൾക്കാരാണെങ്കിലും അവരു നല്ലൊരു കോളേജ് മാത്രല്ല ഇപ്പോൾ നമ്മുടെ ഹണി മൂൺ ട്രിപ്പുകൾ പിന്നെ വെക്കേഷൻ പാക്കേജുകൾ അങ്ങനെ കുറേ പാക്കേജുകളുണ്ട് അവരേല് ഇപ്പോൾ കേരളത്തിനകത്താണോ പറഞ്ഞാൽ തേക്കടി മൂന്നാർ ഇടുക്കി പിന്നെ അങ്ങനെ മിക്കവാറും വയനാട് അങ്ങനത്തെ എല്ലാ സ്ഥലങ്ങളിലേക്കും അവരുടെ പാക്കേജും കാര്യങ്ങളൊക്കെ ഉണ്ട് പുറത്താണെങ്കിൽ ഇപ്പോൾ ഗോവയുണ്ട് പിന്നെ മുംബൈയിലേക്ക് ഉണ്ട് ബാഗ്ലൂരുണ്ട് കാശ്മീരുണ്ട് അങ്ങനെ കുറേ സ്ഥലത്തേക്ക് അവരുടെ പാക്കേജുകളും കാര്യങ്ങളും വരുന്നുണ്ട് പിന്നെ ഈ ഇടയ്ക്ക് മ്യാൻമാർ അല്ല മറ്റേ എവിടേയ്ക്കായിരുന്നു അവരുടെ പാക്കേജ് ഈ ഇടയ്ക്ക് എവിടെയോ വന്നിട്ടുണ്ടായിരുന്നു നല്ലൊരു പാക്കേജായിരുന്നു അത് അഞ്ചു ദിവസത്തെ ട്രിപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു സ്ഥലം കറക്റ്റായിട്ട് ഓർമ്മയില്ല നല്ല ഒരു പാക്കേജന്നെയായിരുന്നു വലിയ അതായത് ബാക്കിയുള്ളവരെ വെച്ച് നോക്കുമ്പോൾ വലിയ വിലയൊന്നും അത് പൈസ റേറ്റും കമ്മിയാണ് പക്ഷേ നല്ല ഹോട്ട അവരൊക്കെ ഹോട്ടലും കാര്യങ്ങളൊക്കെ നല്ല ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ തന്നെയാണ് എല്ലാം ബുക്ക് ചെയ്യുന്നത് ഇപ്പോൾ അവർ അത്യാവശ്യം നല്ല രീതിയിലുള്ള കൊണ്ട് നടക്കുന്ന ഒരു പാക്കേജും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്